ഇന്ത്യയുടെ ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ എൻ്റെ മനസിലേക്ക് ഓടി എത്തുന്നത് പറയുന്നത് ബ്രിട്ടീഷുകാരെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ബ്രിട്ടീഷുകാർ അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി നമ്മുടെ ഇന്ത്യയിലെത്തുകയും നമ്മുടെ ഇന്ത്യക്കാരെ മുഴുവൻ അവരുടെ ആധിപത്യത്തിന് കീഴിൽ ആക്കുകയും ചെയ്തു ഒരുപാട് നാളുകൾ നമ്മൾ സ്വാതന്ത്ര്യം എന്താണെന്നറിയാതെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് കീഴിൽ കഴിയുകയുണ്ടായി സ്വതന്ത്രമായി നടക്കാനോ സ്വന്തം അഭിപ്രായം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം പോലും അക്കാലത്ത് നമ്മൾ ഇന്ത്യക്കാർക്ക് ഉണ്ടായിരുന്നില്ല നിരവധി ആളുകൾ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി നിരവധി ആളുകൾ പ്രവർത്തിക്കുകയുണ്ടായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്ര പിതാവായ മഹാത്മാ ഗാന്ധിജിയാണ് സ്ത്രീകൾക്ക് അവരുടെ മാറു മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം പോലും അക്കാലത്തുണ്ടായിരുന്നില്ല അതിനെല്ലാം എതിരായി നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ പ്രവർത്തിക്കുകയുണ്ടായി പിന്നെ ഇന്ത്യയെ കുറിച്ച് അഭിമാനം തോന്നിയ ചരിത്ര നിമിഷം ഏതാണെന്നു പറഞ്ഞാൽ തീർച്ചയായും സ്വാതന്ത്ര്യം ലഭിച്ച ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് നാമെല്ലാം ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ കീഴിൽ നിന്നും സ്വതന്ത്രമായി തീർന്ന നിമിഷമാണത് സ്വാതന്ത്ര്യ സമരത്തിൽ എടുത്തു പറയാവുന്ന ഇഷ്ടമുള്ള നേതാക്കൾ എന്ന് പറയുന്നത് മഹാത്മാ ഗാന്ധി ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ എന്നിവരൊക്കെയാണ്